നഗരത്തിലെയും ഗ്രാമത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് അത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതിപ്പം അവിടുത്തെ കുട്ടികൾ ആണെങ്കിലും അല്ലെങ്കിൽ രക്ഷിതാക്കൾ ആണെങ്കിലും അവിടുത്തെ ബിൽഡിങ്ങ്കൾ ആണെങ്കിലും പിന്നെ അവിടുത്തെ അന്തരീക്ഷങ്ങൾ ആണെങ്കിലും നല്ല വ്യത്യാസമുണ്ട് ഗ്രാമത്തിലേയും നഗരത്തിലേയും തമ്മിൽ അപ്പോൾ ഇപ്പം ഗ്രാമത്തിലെ അന്തരീക്ഷത്തെ കുറിച്ച് പറയുക ആണെങ്കിൽ അത് എപ്പോഴും ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ഒച്ചയും ബഹളം ഒന്നും ഇല്ലാത്ത കിളികളുടെയും പുഴയുടേം മരങ്ങൾടേം കാറ്റിൻ്റെ ഒക്കെ ഒച്ച കേട്ട് അതുപോലെ ഉള്ള ഒരു ഒട്ടും നോയിസുകളില്ലാത്ത വളരെ മികച്ച ഒരു അന്തരീക്ഷമായിരിക്കും ഗ്രാമത്തിലെ സ്കൂളുകൾക്ക് ഉള്ളത് അപ്പോൾ ഈ നഗരത്തിലെ അതേ സമയം നഗരത്തിലെ വെച്ച് നോക്കുവാണെങ്കിൽ നഗരത്തിലെ സ്കൂളുകളിൽ എപ്പോഴും വണ്ടിയുടെ ഹോണും വണ്ടിയുടെ ഒച്ചയും പിന്നെ പുകയും അങ്ങനത്തെ മലിനീകരണങ്ങളും പിന്നെ പുഴയുടെയും കാറ്റിൻ്റെയും ഒന്നും ഒച്ചയൊന്നും കേൾക്കാൻ പറ്റുകേല അവിടെ ഒന്നും കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഭയങ്കരം ഭയാനകമായിട്ടുള്ള നോയിസുകളായിരിക്കും ടൗണിൻ്റെ നോയിസുകൾ ഫാക്ടറീസിൽ നിന്നുള്ള നോയിസുകൾ അങ്ങനെ ഒരുപാട് ശബ്ദങ്ങളും ശബ്ദ മലിനീകരണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുവാന്ന് പറയണത് കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിലാണേലും ഒരുപാട് അഫക്ട് ചെയ്യും പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് പഠിക്കുന്നത് പോലല്ലല്ലോ ഈ ഭയങ്കര ബഹളം ഉള്ള അറ്റ്മോസ്ഫിയറിന്ന് പഠിക്കുന്നത് ഈ നഗരത്തിലെ സ്കൂളുകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അത് അതുപോലെ ആണ് ഈ ഭയങ്കര ബഹളം ഉള്ള അറ്റ്മോസ്ഫിയറി ഇരുന്ന് സംസാരിക്കുന്ന പോലെയാവും അല്ല പഠിക്കുന്ന പോലാവും നഗരത്തിലെ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്നത് പിന്നെ നഗരത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഗ്രാമത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും തമ്മിലും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഗ്രാമത്തിലുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ കുറച്ചൂടെ ഈ നേച്ചറിൻ്റെ കാര്യങ്ങൾ ഒക്കെ ഒരുപാടറിയും ഇപ്പം ഉദാഹരണം ഇപ്പോൾ കപ്പ പറിക്കുന്നതല്ലേ ചേന പറിക്കുന്നത് അല്ലെങ്കിൽ ചേന നടുന്നത് കപ്പ നടുന്നത് അതിനെ കുറിച്ചൊക്കെ ഈ കുട്ടികൾക്ക് നല്ല ബോധ്യം ഉണ്ടാകും പക്ഷേ അതേ സമയത്ത് ഇപ്പം ഒരു നഗരത്തിലെ പിള്ളേരോട് ചോദിച്ചാൽ അതൊന്നും അറിയണം എന്നില്ല അപ്പം കുട്ടികൾ കുറച്ചൂടെ ആ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവുണ്ടാകും ഗ്രാമത്തിൽ പഠിക്കുന്നത് ആണെങ്കിൽ പക്ഷേ അതേ സമയത്ത് ഇപ്പം നേരെ തിരിച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പം ഈ നഗരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മറ്റു പല കാര്യങ്ങളും ഇപ്പം എന്താ റോഡ് ട്രാഫിക്ക് സിഗ്നലുകളെ കുറിച്ചും ട്രാഫിക്ക് സയൻസിനെക്കുറിച്ച് ഒക്കെ ഒരുപാട് വിവരം കാണും പക്ഷേ അത് ഗ്രാമത്തിലുള്ള പിള്ളേർക്ക് അതൊന്നും കാണണം എന്നില്ല അതൊക്കെ വലിയ വ്യത്യാസങ്ങളാണ് പിന്നെ അദ്ധ്യാപകർ ആണെങ്കിൽ തന്നെ ഗ്രാമത്തിലുള്ള അധ്യാപകർ എന്ന് പറയുമ്പോൾ അവർ കുറച്ചൂടെ അവിടെ ഉള്ള കുട്ടികളെക്കുറിച്ച് കൂടുതലവർക്ക് അറിയാൻ സാധിക്കും കാരണം ഗ്രാമത്തിലുള്ള സ്കൂളുകളിൽ ഒക്കെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ എന്ന് പറയുമ്പോൾ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നായിരിക്കും പക്ഷേ നഗരത്തിൽ നിന്ന് പറയുമ്പോൾ അങ്ങനെ അല്ല അവർ അവർ ദൂരെ നിന്നൊക്കെ ആയിരിക്കും വരുന്നത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് നിന്നും വന്നിട്ടായിരിക്കും അവർ പഠിപ്പിക്കുന്നത് അപ്പം അതിൻ്റെ വ്യത്യാസം ഉണ്ട് കുട്ടികളെ അടുത്ത് പേഴ്സണലായിട്ട് അറിയാവുന്ന ടീച്ചറ് പഠിപ്പിക്കുമ്പം കുട്ടികൾക്ക് കുറച്ചൂടെ മനസ്സിലാക്കാനും അവരോട് ഓപ്പണായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊക്കെ എളുപ്പമാക്കും പക്ഷേ അപ്പം ഒട്ടും അറിയത്തില്ലാത്തവർ ആകുമ്പോൾ സംസാരിക്കുന്ന പോലായിരിക്കും ചിലപ്പം നഗരത്തിലെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അപ്പം അത് ഭയങ്കര വലിയ ഒരു വ്യത്യാസമാണ് പിന്നെ ഗ്രാമത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരെൻസ് അവർ കുറച്ചൂടെ നിഷ്കളങ്കർ ആയിരിക്കും അവർക്ക് അവർ ചിലപ്പം പെട്ടന്ന് ദേഷ്യം വന്നേക്കാം പിന്നെ അവർക്ക് ചിലപ്പോൾ അവരുടെ കുട്ടികളെ കാര്യത്തിൽ വേണ്ട പോലെ ഇടപെടാൻ പറ്റിയെന്ന് വരില്ല കാരണം അവർക്ക് അവരുടെതായ ഗ്രാമത്തിലുള്ള ജോലികൾ കാണും അതേ സമയത്ത് ഇപ്പം ഈ നഗരത്തിലുള്ള ഇതാണെങ്കിൽ നേരെ തിരിച്ച് അവർക്ക് കുറച്ചൂടെ തിരക്ക് ഉണ്ടെങ്കിലും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രാമത്തിൽ ഉള്ളവരെക്കാലും കൂടുതൽ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് അറിയാം കാരണം അവിടെ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് ഒക്കെ അത്യാവശ്യം വളരെ വലിയ എഡ്യൂക്കേഷൻസുണ്ടാവും അപ്പോൾ ഇങ്ങനെ എഡ്യൂക്കേഷൻ കൂടുമ്പം അവർക്ക് കൂടുതലുള്ള അറിവുകൾ ഉള്ളത് കൊണ്ട് എങ്ങനെ കുട്ടികളോട് ഇടപെടണം എന്നുള്ള അറിവുകൾ ഒക്കെ ഉള്ളതു കൊണ്ട് തന്നെ അവർക്ക് എളുപ്പമാകും അങ്ങനെ ഇടപെടണം എങ്ങനെ ടീച്ചേഴ്സിനോട് ഇടപെടണം എല്ലാം ഒരു ഇതുണ്ടാവും അപ്പം വളരെ ഈസിയായിട്ടും കാര്യങ്ങളെല്ലാം നടന്നും പിന്നെ അവർക്ക് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ചിലപ്പം സമയം കിട്ടി എന്ന് വരികയില്ല ഗ്രാമത്തിൽ ഉള്ളവർ ശ്രദ്ധിക്കുന്നത് പോലെ അതൊരു വ്യത്യാസമാണ് പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ വ്യത്യാസം ഉണ്ട് ഈ നഗരത്തിൽ നിന്ന് പറയുമ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളും ക്ലാസ് മുറികൾ ആണെങ്കിൽ നല്ല സ്മാർട്ട് സ്ക്രീനുകളും പ്രൊജക്ടറും സ്പീക്കറും അങ്ങനത്തെ ക്ലാസ് റൂമുകളൊക്കെ ആയിരിക്കും പക്ഷേ അതേ സമയത്ത് ഗ്രാമത്തിലെ സ്കൂളുകളിൽ അങ്ങനെ ഒന്നും ഉണ്ടാകണം എന്നില്ല പക്ഷേ എന്നിരുന്നാലും ഇപ്പം ഇന്ത്യയിൽ മിക്ക സ്കൂളുകളിലും ഇതൊക്കെയുണ്ട് കാരണം ഇന്ത്യ വളർന്നു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അങ്ങനെ വളർച്ചയുടെ ഭാഗമായിട്ട് ഇതൊക്കെ വളർന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാലും എല്ലാ സ്കൂളിൽ ഒന്നും എത്തിയിട്ടില്ല എല്ലാ ക്ലാസ്സ് മുറികളിലും എത്തിയിട്ടില്ല പിന്നെ ഗ്രാമത്തിലെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് എങ്ങനെ നാട്ടുകാരോട് ഇടപെടണം എന്നൊക്കെ അറിയാൻ പറ്റും കാരണം അവർ നാട്ടുകാരോടൊക്കെ ഇടപഴകിയായിരിക്കും മുന്നോട്ട് പോകുന്നത് പക്ഷേ നഗരത്തിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല ഒത്തിരി ഇടപഴുകേണ്ട ആവശ്യങ്ങളും അവസരങ്ങൾ ഒന്നും കുട്ടികൾക്ക് ഉണ്ടാകണം എന്ന് ഇല്ല പിന്നെ എഡ്യൂക്കേഷൻ്റെ കാര്യം ആണെങ്കിലും ഗ്രാമത്തിലെ സ്കൂളുകളിലെ എഡ്യൂക്കേഷൻന്ന് പറയുമ്പം നഗരത്തിലെ സ്കൂളുകളിലെ കിട്ടുന്ന എഡ്യൂക്കേഷൻ്റെ അത്രയും സ്റ്റാൻഡേർഡോ ഒന്നും ഉണ്ടാകണം എന്നില്ല കാരണം അവിടെ ഗ്രാമത്തിൽ ഒള്ള സ്കൂളുകളിൽ കൂടുതലും അവിടെ അടുത്തുള്ള കുട്ടികളായിരിക്കും വരുന്നത് അപ്പോൾ അവർക്ക് പണ്ട് തൊട്ടെ അറിയാവുന്നവർ ഒക്കെ ആയിരിക്കും അപ്പം അവർ എപ്പോഴും സംസാരിച്ചൊക്കെ ഇരിക്കുമായിരിക്കും ചെയ്യുന്നത് ടീച്ചേഴ്സിനു അവരെ അറിയാന്നുണ്ടേൽ ചിലപ്പോൾ അവരും അതിൻ്റെ കൂട്ടത്തിലങ്ങ് കൂടി അങ്ങനൊക്കെ ഭയങ്കരം മറ്റൊരു അറ്റ്മോസ്ഫിയറായിരിക്കും പക്ഷേ അത് കുട്ടികളെ ഒരു വിധത്തിൽ പറയുക ആണെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും പക്ഷേ മറ്റൊരു വിധത്തിൽ പറയുക ആണെങ്കിൽ അത് പഠനത്തെ ബാധിക്കാൻ ചാൻസുണ്ട് അപ്പം അതൊക്കെ ഒരു വ്യത്യാസമാണല്ലോ പിന്നെ നഗരത്തിലെ സ്കൂളുകളിൽ ആണെങ്കിൽ കുട്ടികൾ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും മറ്റേ ബാക്കി ഇപ്പം കോകരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നല്ല പോലെ കൊടുക്കാം അത് പല ഗ്രാമത്തിലെ സ്കൂളുകൾക്ക് ഇതൊന്നും അറിയണം എന്നില്ല അപ്പം അതൊക്കെ ഒരു വ്യത്യാസമല്ലേ